ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് ഏഴ് ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് എട്ട് എട്ട് രണ്ടായിരത്തി പതിനാറ് എട്ട് അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഒൻപത് അഞ്ച് രണ്ടായിരത്തി പത്ത് പത്ത് പത്ത് രണ്ടായിരത്തി പത്തൊൻപത്